ആ നമസ്കാരം ആ സാറേ ഞാനെ എൻ്റെ കയ്യിലൊരു ഫോൺ മിസ്സിംഗ് ആയിരുന്നെ അപ്പം അങ്ങനെ വിളിച്ചതാണ് നമുക്കൊര് അത് അത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിരുന്നു ആ ഞാന് വണ്ടിയിൽ വച്ചിരുന്നതാണ് ഞാന് പാർക്ക് ചെയ്ത സമയത്ത് വണ്ടിയിൽ നിന്ന് ആരോ എടുത്തിട്ട് പോയതാണെന്നാണ് തോന്നുന്നത് അപ്പം അതൊര് കംപ്ലൈൻറ്റ് റെജിസ്റ്റർ ചെയ്യാനായിരുന്നു

വണ്ടി ലോക്ക് അല്ലായിരുന്നു ആ ആ ഫോൺ സാംസങ്ങിൻ്റെ ആണ് എസ് ട്വൻറ്റി ഫോർ അ ആ അതെ ഡി ഫോണ് ഡെറ്റാ ഡെറ്റാസുണ്ട് പിന്നെ അതുമാത്രല്ല ഫോണ് തന്നെ നല്ല വിലപ്പെട്ടതാണ് അപ്പം നമുക്ക് അത് എന്താ ചെയ്യാൻ പറ്റുക ഇല്ല ശ്രദ്ധിച്ചിട്ടില്ല അത് ഞാന് ചോദിക്കുന്നത് വെച്ചാല് നമുക്ക് ഇപ്പം സൈബർ സെല്ലിൽ കൊടുക്കുകയോ അല്ലെങ്കില് ലൊക്കേഷൻ ട്രേസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടോ ആ ഓക്കെ അത് അത് എന്റെ കയ്യിലുണ്ട് ആ അതേ അല്ലെ ആ അപ്പം കാര്യം വേറൊന്നുമല്ല അപ്പം എൻ്റെ ഇച്ചിരി പേർസണൽ ഡേറ്റാസും കാര്യങ്ങളു ഒക്കെ ആ ഫോണിലുണ്ടായിരുന്നു ആ അപ്പം നമുക്ക് ആ ആ ഞാന് ഇപ്പം ഇപ്പം തന്നെ എത്തിയേക്കാം ആ സാറെ ഒരുപാട് ലേറ്റാവുമായിരിക്കുമോ ഒരുപാട് താമസം അത് നമുക്ക് അവിടുന്ന് മെയിൽ ചെയ്തുകൂടെ അല്ല സാറെ സാധാരണ അല്ല സാധാരണ നമ്മള് ചെയ്യുന്ന ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ സ്റ്റേഷനില് റെജിസ്റ്റെറ് ചെയ്താല് ക കംപ്ലെയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് ക സ്റ്റേഷനിൽ നിന്ന് തന്നെ മെയിൽ അയക്കുവല്ലെ ചെയ്യാറ് അല്ല അതല്ല ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് സൈബർ സെല്ലിൽ കൊടുക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് നേരിട്ടങ്ങ് പോയി കൊടുത്താൽ പോരെ അതേ അല്ലെ ആ ഓക്കെ ഇപ്പം ഇപ്പം ഞാന് എന്നാണ് വേണ്ടുന്നത് ആ ഓക്കെ എത്തിയേക്കാം എത്തിയേക്കാം ആ എന്തെങ്കിലും അതിനിപ്പോൾ എന്താ മറ്റേ ആ ഇമെയിൽ നമ്പര് കൊണ്ടുവരണം അല്ലെ ഫോണിൻ്റെ ആ അപ്പം നമുക്ക് എൻ്റെ പേർസണൽ ഡീറ്റെയിൽസ് വല്ലതും അയ ആധാറോ ഐഡിയോ ആ അത് അതിൻ്റെ അല്ല ഓക്കെ അത് ശരി ശരി ഓക്കെ